ഈ മൊബൈൽ ഗെയിമിംഗ് എന്ന് പറയുമ്പം ചിലര് ഉണ്ട് ഇപ്പോൾ റൂമിൻ്റകത്ത് കയറി ഇരുന്ന് രാവിലെ തൊട്ട് വൈകീട്ട് വരെ വെറുതെ ഫോണിൽ കളിച്ച് ഗെയിമ് കളിച്ച് കിടക്കുന്നവരുണ്ട് ഇപ്പം എഹ് നമ്മള് എന്ന് പറയുമ്പം നമ്മള് എന്ന് പറയുമ്പം ഏകദേശം അതേപോലെ വെറുതെ ഇങ്ങനെ റൂമിൽ കയറി ഇരിക്കുന്നു കളിക്കുന്നു ചിലരുണ്ട് റൂമിൻ്റകത്ത് കയറി ഇരുന്നാല് എവിടേ നിന്ന് കളിക്കുവാണെങ്കിലും ഈ ചില ആപ്പ് ഗെയിമുകളുണ്ട് ഫണ്ട് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് അതൊക്കെ ഇരുന്ന് കളിച്ച് അകൗണ്ട് ചില ഈ ഫ് ഫ്രീ ഫയറ് പബ്ജി അങ്ങനെക്കൊള്ളേന്ന് പറയുമ്പം കളിച്ച് കളിച്ച് അകൗണ്ട് സെറ്റാക്കി കഴിഞ്ഞാൽ അത് വിൽക്കുമ്പം ഫണ്ട് കിട്ടും പിന്നേന്ന് പറയുമ്പം ചിലതുണ്ട് നമക്കിങ്ങനെ ഫണ്ടിട്ട് ചീട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയുള്ള ഗെയിമൊക്കെ കളിക്കുമ്പം എന്ന് പറയുമ്പം അത്രക്ക് ശ്രദ്ധയോട് കൂടെ വേണം കളിക്കാൻ ഐ മീൻ നമുക്ക് കുറെ ഫണ്ട് കിട്ടും അങ്ങനെയുള്ള കേസ്കള് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോകുന്നത് ഉണ്ട് കുറെ ആപ്പുകള് അങ്ങനെ ഗെയിമുകളൊക്കെ ഇല്ലേ അതൊക്കെ നോക്കിയും കണ്ടൊക്കെയാണ് കളിക്കേണ്ടത് ഇപ്പം എന്ന് പറയുമ്പം കുട്ടികള് ഫുൾടൈം ഫോണിലായിരിക്കും ചിലരുണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടീ ഫോണില് കുറെ ആപ്പും ഗെയിമുകള് ഗെയിമുകളൊക്കെ കളിച്ച് പൈസ ഉണ്ടാക്കുന്ന അങ്ങനെ കുറെ പേരും ഉണ്ട്